സാധാരണയായി നമ്മൾ ഒരു സ്ഥലത്തേക്ക് യാത്ര പോകാൻ തീരുമാനിക്കുമ്പോൾ ആ യാത്രക്കായി ആവശ്യമായ കാര്യങ്ങളൊക്കെ നമ്മളാൽ കഴിയുന്നത് കരുതി വെക്കും അത്യാവശ്യത്തിനു ആഹാരവും വെള്ളവും വസ്ത്രം മൊബൈൽ ഫോൺ പവർ ബാങ്ക് ചാർജർ അങ്ങനെ ആവശ്യമായ എല്ലാം കരുതിവെക്കും എന്നാൽ പോലും ചില സൗകര്യങ്ങൾ നമുക്ക് കൈയിൽ കരുതാൻ സാധിക്കില്ല ഒരു യു ദൂരയാത്രയാണ് നമ്മൾ പോകാൻ ഉദേശിക്കുന്നത് എങ്കിൽ യാത്രക്കിടയിൽ ഒന്ന് വിശ്രമിക്കാൻ ഇടുങ്ങിയ പ്രദേശമാണ് എങ്കിൽ അവിടെ റസ്റ്റോറൻറ് ഉണ്ടാവില്ല ടോയ്ലറ്റ് സൗകര്യം ഉണ്ടാവില്ല ചില സാഹചര്യങ്ങളിൽ വാഹനത്തിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുക ആണ് എങ്കിൽ അവിടെ വർക്ഷോപ്പ് ഉണ്ടാവില്ല

വിശക്കുമ്പോൾ ആഹാരം കഴിക്കാൻ ഹോട്ടൽ ഉണ്ടാവില്ല ഇതൊക്കെ നമ്മൾ എവിടെയെങ്കിലും യാത്ര പോകാൻ ഉദേശിക്കുമ്പോൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളാണ്